ഹലോ ഇത് കരീം ഹാജിയല്ലേ നിങ്ങളല്ലേ ആധാറിൻ്റെ കോപ്പിയൊക്കെ വേണം പറഞ്ഞിൻറ്റ് അതേ കോപ്പി ഇപ്പെൻറ്റടുത്തില്ല കുട്ട്യോള് ഇവിടെ ഇല്ലാണു ഞായറാഴ്ച്ചയല്ലേ അക്ഷയ തൊറക്കൂല്ല എങ്ങനെപ്പ അത് കിട്ടുക കിട്ടണമെങ്കില് കുറച്ച് പണിയാണ് വൈകുന്നേരാകുമ്പോഴത്തേനൊക്കെ കിട്ടിയാല് മതിയോ എന്നാല് പിന്നെ മക്കളെയൊക്കെ ഒന്ന് സോപ്പിട്ട് ഉച്ചയാകുമ്പോള് നോക്കി നോക്കാം ഇതിപ്പോള് ഇനിയിപ്പോള് എന്താണു ചെയ്യുക പിന്നെ ഇമെയ്ലായിട്ടൊക്കെ അയച്ചു തന്നാല് മതിയെങ്കില് അതിന് മാണം മക്കളൊക്കെ മെനക്കെട്ട് ഓലെ കിട്ടണം എന്തായാലും ഓലെ കിട്ടുകയാണെങ്കില് വൈകുന്നേരമാവും ഇപ്പോഴെന്താണ് കാട്ടിനി മക്കള് വന്നിട്ട് ഓലോട് പറഞ്ഞാണ്ട് അയച്ചുതരാന് പറയാം